പറ രണ്ട് ദിവസം ആയിട്ടുള്ളൂ ആര് പറഞ്ഞ്

അപ്പം വെറുതെ കഴിച്ചലാണോ പിന്നെ എന്തിനാണ് വന്നത് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്നത് അങ്ങനെ ഒന്നും കഴിക്കരുത് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ പനി വേറെ

ഒരാൾക്കും ഇല്ലേ വെ എന്തെങ്കിലും മഴ എന്തെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും പോയോ മാസ്ക് ഒന്നും ഇല്ലാതെയാണോ പോയത്

പിന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ തൊണ്ടവേദനയോ ഏത് സൈഡ് ആണ് അറ്റത്താണോ നടുക്കാണോ

ഉണ്ടോ മേല് വേദന എന്തെങ്കിലും ഉണ്ടോ ഇടവിട്ട് ഇടവിട്ടുള്ള പനിയോ രാത്രി പനിയുണ്ടോ രാത്രി ചുമയും പനിയും ഉണ്ടോ രാത്രി ചുമയും പനിയും ഉണ്ടോ എന്ന് ഒന്നിച്ച് അടുപ്പിച്ചായിട്ടൊന്നുമില്ല എത്ര ദിവസമായി തുടങ്ങിയിട്ട് ആ ശരി ഞാൻ തൽകാലം തരുന്ന മരുന്ന് വാങ്ങിയിട്ട് കഴിക്ക് കേട്ടോ ഇന്നിപ്പം ഇത് കഴിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യണം ഇത് കഴിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വാ ആന്റിബയോട്ടിക്കും ഉണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് കുറവില്ലെങ്കി ടെസ്റ്റ് ചെയ്യാം